ഇന്ത്യയിലെ ആളുകൾ സന്ദർശിക്കുന്ന പ്രധാപ്പെട്ട ഇതെന്ന് പറയുന്നത് ഗോൾഡൻ ടെംപിള് അതുപോലെ ഇവിടെയുള്ള പല പല പള്ളികള് പല പല പ്രശസ്തമായ അമ്പലങ്ങളുണ്ട് ഗോൾഡൻ ടെമ്പിള് എന്നൊക്കെ പറയുന്നത് പ്രത്യേകമായും സിക്കുകാരുടെ ആചാരമാണവിടെ നടക്കുന്നത് അവിടെ മിക്ക ദിവസം അന്നദാനങ്ങളും എല്ലാ ദിവസം തന്നെ അന്നദാനങ്ങളും ഫുഡ് കൊടുക്കുന്നു പിന്നെ അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് സുരക്ഷിതമായി കിടക്കാനുള്ള സ്ഥലങ്ങളവരൊരുക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല അമ്പലങ്ങളും പല പള്ളികളും ഇപ്പോൾ അരുവിത്തറ എന്ന് പറയുന്ന സ്ഥലം അതുപോലെ വേളാങ്കണ്ണി ഇവിടെയൊക്കെ വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത് അവിടെ പോവുകയും നമുക്ക് മുട്ടിൽ ഇഴഞ്ഞ് ഉള്ള ആചാരങ്ങളുണ്ട് ആഘോഷങ്ങളുണ്ട് സിക്ക് കാരുടെ പല ആഘോഷങ്ങളും നടക്കുന്നത് ഗോൾഡൻ ടെംപിളിൽ വച്ചാണ് പിന്നെ അരുവിത്തറ പോയാലും നമുക്ക് പല രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ടാനങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പാരമ്പര്യമായ തുടർന്ന് വരുന്ന ആചാരങ്ങളും അനുഷ്ടാനങ്ങളാണ് വേളാങ്കണ്ണിയില് വേളാങ്കണ്ണി മാതാവിൻ്റെ മുന്നിൽ പോയി പ്രാർഥിക്കുക ഇവിടെ മലയാറ്റൂർ മല അത് ഒരു പള്ളിയാണ് മലയാറ്റൂർ പള്ളിയിലേക്ക് കയറി പോകുന്നത് ഒരു വലിയ മലയിലൂടെയാണതൊരു യാത്രയായിട്ട് ഒരു ത്യാഗമായിട്ടേറ്റെടുത്ത് പ്രാർഥനയോടെ അതില് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല രീതീയിൽ ഉള്ള ഇന്ത്യയിലുള്ള ആളുകൾ സന്ദർശിക്കുന്ന മതകേന്ദ്രങ്ങളും ഒക്കെ ഇവിടെയാണ് ഇതുപോലെയുള്ള ആഘോഷങ്ങളും ആചാരങ്ങളുമാണ് നടക്കുന്നത്